ഇപ്പോൾ ഗതാഗതത്തിന് അസൗകര്യങ്ങൾ ഒന്നുമില്ല ഇഷ്ടം പോലെ വണ്ടികളും എല്ലാമുണ്ട് നേരത്തെ വണ്ടികൾ ഒന്നുമില്ലായിരുന്നു നമ്മള്ക്ക് ഒരു കുട്ടിക്ക് അസുഖങ്ങൾ ഉണ്ടായാല് ആ കുട്ടിയേയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബസ്സുകളില്ല ആട്ടോറിക്ഷകളില്ല ഇതൊന്നും ഇല്ലായിരുന്നു വല്ലപ്പോഴും ഒരു വണ്ടികളോ ഒരു സ്കൂട്ടറോ സൈക്കിളോ മാത്രമേ ഉള്ളായിരുന്നുള്ളു ഒരോരുത്തരെയും ആശ്രയിക്കണം ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടായാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് പേരെ ആശ്രയിച്ചു വേണം കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഓടുന്ന സമയവും ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സമയമില്ല ഇപ്പോൾ മുക്കിലും വണ്ടികളാണ് പിന്നെ വീട്ടുകളിലായാലും ആട്ടോ റിക്ഷ സ്കൂട്ടര് കാര് എല്ലാ വണ്ടികളും ഉണ്ട് ഇപ്പോള് ഓരോ വീട്ടിലും സ്കൂട്ടർ ആണെങ്കിൽ എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ കുട്ടികളും സ്കൂട്ടർ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന് ആവശ്യമായ എല്ലാമുണ്ട് ഇപ്പോള് ബസ്സുകൾ ഉണ്ട് സൈക്കിളുണ്ട് ഓട്ടോറിക്ഷകളുണ്ട് എല്ലാം ഇപ്പോള് ജീപ്പുകളുണ്ട് എല്ലാം ഓരോ വീടുകളിലും ഇപ്പോള് ഇഷ്ടംപോലെയുണ്ട് ഇപ്പോള് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകള് ഉണ്ട് അഞ്ച് മിനുട്ട് രണ്ട് മിനുട്ട് കൂടുമ്പോള് നമ്മള്ക്ക് എല്ലാം കൊണ്ടും സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മള്ക്ക് അങ്ങനെയൊരു കാര്യമുണ്ട് ഇപ്പോള് ബസ്സുകളും സ്കൂട്ടറുകളും കാറുകളും എല്ലാ വീടുകളിലും കാറുകളുണ്ട് ഡ്രൈവറുകളുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും സ്കൂട്ടറും ഡ്രൈവിങ്ങും പഠിച്ച് എല്ലാ വീടുകളിലും വണ്ടിയും കാറും എല്ലാം ഉണ്ട് ഇപ്പോള് യാതൊരു കാരണ വശാലും ഒരു തടസ്സങ്ങളും ഇല്ല ഇപ്പോള് നമ്മള്ക്ക് ഹൈവേലോട്ട് ചെന്ന് നിന്നാല് തന്നെ പത്ത് മിനുട്ട് നില്ക്കണ്ട അന്നേരെ ബസ്സാണ് ഉള്ളത് ഇല്ലെങ്കിൽ ആട്ടോറിക്ഷയുണ്ട് സ്കൂട്ടറുണ്ട് സൈക്കിളുണ്ട് ഇതെല്ലം നമ്മള് കൈ കാണിച്ചാൽ അന്നേരെ നിർത്തി ആ അന്നേരെ നിർത്തും ആ അങ്ങനാണ്